സ്മാർട്ട്ഫോണുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് ഇപ്പം എപ്പോഴും ഒരുപാട് ഇപ്പം നേരത്തെയൊക്ക നേരെ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ സ്മാർട്ട്ഫോണുകളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഓക്കെ നടത്താനും അതുപോലെ ആളുകളെയൊക്കെ പരസ്പരം കാണാനും മിണ്ടാനും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പക്ഷെ ആ പരിമിതികളെല്ലാം മാറിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് ഇതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചപ്പോൾ കൂടുതലും ഇങ്ങനെത്തെ സ്മാർട്ട്ഫോണുകളൊക്കെ അതിനുമുമ്പ് നമുക്കറിയാം ഈ ടച്ച് ഫോണുകൾ വരുന്നതിന് മുമ്പ് തന്നെ അല്ലാതെയും ചെറിയ ചെറിയ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെന്ന് പറയുമ്പം കൂടുതലും വിളിക്കാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളായിരുന്നു അതേസമയം സ്മാർട്ട്ഫോൺ വന്നതിന് ശേഷം നമുക്ക് ഈ ലോകത്തെമ്പാടുമുള്ള ആളുകളെ കാണാനും അവരോട് സംസാരിക്കാനും മിണ്ടാനും വീഡിയോ കോളിംഗും ഒക്കെ ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകൾ വർദ്ധിക്കുന്നു പിന്നെ ഇപ്പം നമുക്കെന്ത് ആവശ്യം വന്നാലും അത് ഗൂഗ്ൾൽ സെർച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നു അതുപോലെ കുറേ ആപ്പുകളാ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ഭയങ്കര ഹെൽപ്ഫുള്ള് ആക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റഡി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ സ്മാർട്ട്ഫോണുകൾ ജീവിതം മെച്ചപ്പെടുത്തിയത് കൂടുതലും എനിക്ക് തോന്നുന്നു യുവജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സ്മാർട്ട്ഫോണ് യൂസ്ഫുള്ള് ആയിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ കൂടുതലും മാറ്റാനും അതുപോലെ എന്ത് കാര്യവും ഹെൽപ്പ്ഫുൾ ഹെൽപ്പ് ആയിട്ട് വേണ്ടി വരുന്ന എന്ത് കാര്യവും യാതൊരു തടസ്സവും കൂടാതെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാനായിട്ട് സ്മാർട്ട്ഫോണുകളിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഒക്കെ ഒരുപാട് സാധിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും വർദ്ധിച്ച് വരുന്നതും ഇത് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് പിന്നെ സ്മാർട്ട്ഫോണ് സ്മാർട്ട്ഫോണിനെപ്പറ്റി പറയുമ്പോൾ കൂടുതലും പല ആളുകളും നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട് എങ്കിലും അതൊക്കെ ഒരു സാധ്യതകളാണ് പക്ഷെ അതിലും ഉപരി മറ്റനേകം എന്താ മറ്റനേകം കുറേ കാര്യങ്ങൾ ഹെൽപ്ഫുള്ള് ആയിട്ട് ഈ സ്മാർട്ട്ഫോണ് നൽകുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് കുറച്ച് കുറച്ച് അറിവുകളൊക്കെ ഉള്ളൂയെങ്കിലും ആ അറിവുകളെയൊക്കെ മാറ്റിക്കൊണ്ട് അതായത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുന്നു ഇപ്പോൾ ഒരു സ്മാർട്ട്ഫോണ് കയ്യിലുണ്ടെങ്കിൽ പെട്ടന്നൊരു ഗൂഗിൾ മീറ്റ് കൂടാനും ഒക്കെ നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആവശ്യമായിട്ട് വന്നൊരു കാര്യമായിരുന്നു ഗൂഗിൾ മീറ്റ് ഒക്കെ അപ്പം അതൊക്കെ കുറച്ചുകൂടെയും എന്താണ് ഒന്നിച്ച് കൂടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം വഴികൾ ഒരുക്കിത്തരുന്നു സ്മാർട്ട്ഫോൺ അത് ഫോണിലൂടെ മാത്രമാണ് അതിനൊക്കെ സാധിക്കുന്നത് പിന്നെ കൂടുതലും മറ്റു തലത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട്ഫോണിൻ്റെ ഉപയോഗം വഴി ഇപ്പം നമുക്കറിയാം കുറേ ഓഫീസുകളിൽ പണ്ടൊക്കെ ഒരുപാട് ഫൈലുകൾ കെട്ടിക്കിടന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറേക്കൂടെ ഫൈൽസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നു പിന്നെ അതുപോലെ ആധാർ പോലെയുള്ള കാര്യങ്ങൾ ലിങ്കിംഗ് ചെയ്ത് നമ്മുടെ ഫോണിൽത്തന്നെ ആധാർ കാർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു